ദൈനം ദിന സംഭാഷണങ്ങളിൽ നമ്മൾ വളരെയധികം മലയാള പദ പ്രയോഗങ്ങൾ നടത്താറുണ്ട് എന്നാൽ അതിൽ എല്ലാം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം അതിൽ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് അതായത് വിളിക്കണേ എപ്പോൾ വരും സുഖമാണോ എന്താണ് പരിപാടി ചായ കുടിച്ചോ ഭക്ഷണം കഴിച്ചോ എപ്പോഴാണ് വന്നത് എഴുന്നേൽക്കൂ വാ പോകാം പോയി വരാം ചോറുണ്ടോ വെള്ളം വേണോ കാണണേ കേൾക്കണേ പറയണേ ക്ഷീണിച്ചോ വെള്ളം വേണോ വിശക്കുന്നുണ്ടോ പിന്നെ വരാം നാളെ കാണാം കുറച്ച് നേരം കിടക്കൂ കഴിച്ചോ സമയം എത്രയായി സുഖമാണോ